ആ ഇത് ബ്രോക്കറ നമ്പറല്ലേ ആ ഞാൻ സുരേഷ് പറഞ്ഞിട്ട് വിളിക്കയാണ് ആ എനിക്കെ തൃശ്ശൂർ ഒരു ഭൂമി വേണായിരുന്നു സംഭവെന്തെന്നെച്ചാൽ ഒരു വീടും പിന്നൊരിത്തിരി കൃഷി രണ്ടും കൂടി വിചാരിച്ചിട്ടാണ് വീടായിട്ട് വേണ്ട വീടും കൃഷീം ചെയ്യാനുള്ള സ്ഥലോം മൊത്തത്തിലൊരു പത്ത് ആ ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റിൻറ്റെ റേയ്ഞ്ചിൽ വേണം

ആ അല്ല നമ്മൾ വീടും കൂടി വിചാരിച്ചിട്ടാണ് വീടിനോടടുത്ത് നമുക്കൊന്ന് നോട്ടമെത്തണ പോലെ കൃഷി ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു

ആ എങ്ങനെയാണ് ബഡ്ജറ്റൊക്കെ വരണത് ആ ഇനി കുറയില്ലാല്ലേ നമുക്ക് പക്ഷേ വീടും കൂടിയുള്ളോണ്ടേ നമുക്ക് വഴി കിട്ടണം നോക്കാം എൻ എന്തായാലും ഒന്ന് നോക്കീട്ട് നമുക്ക് അതാപ്പോൾ ഇതിൻറ്റെ കാര്യങ്ങളൊക്കെ എങ്ങനാണ് എവിടായിട്ടാണ് വരണത് ആ ആ അങ്ങനെയാണെങ്കിൽ ആ ആ ശരി ഇത് ഭൂമി വേറെ പ്രശ്നോള്ളതൊന്നല്ലല്ലോ ഓണർഷിപ്പ് നമുക്ക് പണിയാവില്ല ആ അത് ശരി ആ ആ അന്നാൽ ആ ആ ആ നമ്മളിപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണേ അപ്പം നമ്മൾ വാടക വീട്ടിൻറ്റെ ചുറ്റിലിങ്ങനെ കൃഷിയൊക്കെ വെച്ചിട്ട് അതൊന്നു നേരെയായീന്നു കണ്ടപ്പോൾ നമുക്കെന്തായാലും എന്നാൽ പുതിയൊരു വീടും വെക്കണം കൃഷീം എന്നാൽ കൊണ്ടു നടക്കാം കളയണ്ടല്ലോന്നു വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനൊരു പ്ലോട്ട് നോക്കണത് ആ ആ ശരി ആ വിലയുടെ കാര്യത്തിലെന്തേലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാകൂല്ലോല്ലേ ആയിക്കോട്ടെ ശരിയെന്നാൽ ശരി താങ്ക് യൂ